ഞാൻ ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വരക്കണമെന്ന ധാരണയോടെ ഞാൻ വീട്ടിൽ വന്നു വരക്കാറുണ്ട് ചിലപ്പോൾ വരച്ച് ക്ലിയറാകും ചിലപ്പോൾ വരച്ച് ക്ലിയറാകില്ല എങ്കിലും ഞാൻ അതിനെപ്പറ്റി തന്നെയും പിന്നെയും വരക്കാറുണ്ട് നോക്കി വരക്കാറുണ്ട് ചിലപ്പോൾ ആ ബുദ്ധിമുട്ടുകളെ സഹിച്ച് ആ പടം ഞാൻ പൂർത്തീകരിക്കുന്നതായിരിക്കും എങ്കിലും പിന്നെയും അടുത്ത ഏതെങ്കിലും പടങ്ങൾ കാണുമ്പോൾ അതും വരക്കണമെന്നും മനസ്സിൽ തോന്നുകയും അതു വരക്കുവാനായി ഞാൻ പേനയും പെൻസിലും എടുത്തു കൊണ്ട് ബുക്കും പേനയും എടുത്തു കൊണ്ട് ഞാൻ പിന്നെയും ആ പടത്തിൽ നോക്കിക്കൊണ്ട് വരക്കുന്നതായിരിക്കും ആ ബുദ്ധിമുട്ടുകൾ സഹിച്ചു പിന്നെയും ഞാനത് വരച്ച് വരച്ച് വരച്ച് നല്ല രീതിയിലാ വര പൂർത്തീകരിക്കുവാൻ നോക്കിയിട്ടുണ്ട് എങ്കിലും ചില പാതകൾ വരക്കുവാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ അത് വ വരയ്ക്കാറുമില്ല നോക്കാറുമില്ല അങ്ങനെ ഞാനത് ഉപേക്ഷിക്കാറുമുണ്ട് പറ്റുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പറ്റാത്തത് ഞാൻ ചെയ്യാറില്ല അത് ഞാൻ വരച്ചു നോക്കും എങ്കിൽ പറ്റുമെങ്കിൽ മാത്രം അത് ചെയ്യും അല്ലെങ്കിൽ പറ്റാത്തതാണെങ്കിൽ അത് വിട്ടു കളയും ഇതുപോലെ ഞാൻ പലതും വരക്കാൻ നോക്കിയിട്ടുണ്ട് ചിലത് പൂർത്തീകരിക്കുമായിട്ടുണ്ട് ചിലത് പൂർത്തീകരിച്ചിട്ടില്ല ചിലത് പകുതിയോടെ കിടക്കും ചിലത് പൂർണ്ണമായിട്ട് കിടക്കും ചിലത് അവിടെ കിടക്കും